ഞ നമ്മളും അല്ലെങ്കിൽ എല്ലാവരും തന്നെ നമ്മുടെ നാളുകളൊക്കെ കാണുന്നത് ഹിന്ദു മതപരമായിട്ട് അല്ലെങ്കിൽ ഹിന്ദു ആചാരപരമായിട്ട് നമ്മൾ ഒരുപാട് ജാതകവും നക്ഷത്രങ്ങളും നാളുകളും ഒക്കെ നോക്ക് നോക്കാറുണ്ടല്ലോ അപ്പം അതിൽപ്പെട്ട നക്ഷത്രങ്ങൾ ഇപ്പം ചില നാൾ നാളുകളുണ്ട് അത്തം തിരുവാതിര വൃശ്ചികം അങ്ങനെ ഒരുപാട് നാളുകളുണ്ട് അതുപോലെ തന്നെ ഓരോ ഓരോ കുട്ടികൾ ജനിക്കുമ്പോഴും ഇന്ന നക്ഷത്രം പിന്നെ അതുപോലെ ഓരോ ഇപ്പോൾ ഒരു കുട്ടി ജനിച്ചാൽ അവർ ഇ ഇന്ന നക്ഷത്രത്തിൽ അവർക്ക് ഇന്ന ഭാഗ്യങ്ങൾ കിട്ടും അവർക്ക് ഇന്ന ഒരു സമയങ്ങളിലെ പിന്നെ നല്ല ഉയർച്ച ഉണ്ടാകും താഴ്ച ഉണ്ടാകും അങ്ങനെ ഒരുപാട് നക്ഷത്രങ്ങൾ നോക്കിയിട്ടാണ് ഇങ്ങനെ ഉയർച്ച താഴ്ച അല്ലെങ്കിൽ സമ്പാദ്യം ഉണ്ടാകും അല്ലെങ്കിൽ സമ്പാദ്യം ഉണ്ടാകില്ല പിന്നെ പഠനത്തിൽ മികച്ച ഒരാളായി മാറും അല്ലെങ്കിൽ പഠനത്തിൽ തീരെ ഉണ്ടാകില്ല പിന്നെ നല്ല ജോലി കിട്ടും അതൊക്കെ തന്നെ നമ്മൾ ചില ആൾക്കാർ നക്ഷത്രങ്ങൾ നോക്കിയിട്ട് ഇപ്പം ജ്യോതിഷം എന്നൊക്കെ പറയും ഇപ്പം നമ്മളുടെ ടി വിയിൽ ചാനൽ ചാനലുകളിലായിക്കോട്ടെ ഒരുപാട് നക്ഷത്രങ്ങൾ പറയുന്ന അല്ലെങ്കിൽ നക്ഷത്രങ്ങൾ ഏതാണ് അതിൻ്റെ പിന്നെ ഇപ്പം ഉയർച്ച താഴ്ച ഏതൊക്കെ ആണെന്നൊക്കെ പറഞ്ഞ് തരുന്ന ഒരുപാട് ജ്യോതിഷത്തിൽ ഏർപ്പെടുന്ന ആൾക്കാരുണ്ട് അപ്പം അങ്ങനെ നക്ഷത്രങ്ങൾ നോക്കി ഒരുപാട് ആയി ഐതിഹ്യങ്ങൾ കഥകളിലും അതുപോലെ ടി വികളിലെ ചാനലുകളിലൊക്കെ നമ്മൾ കാണാറുണ്ടല്ലോ ഇപ്പോൾ ടി വിയിൽ ആയിക്കോട്ടെ നമ്മളിപ്പോൾ ഒരാൾ ഇ ഈ ഒരാൾ വിളിച്ചിട്ട് ഇതിപ്പം അവരോട് ചോദിക്കുന്നു ഇ നക്ഷത്രമാണ് എന്താണ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുക അപ്പം അവർ പറയും ഇങ്ങനെ എന്തെങ്കിലും പിന്നെ പഠനത്തിൽ മികച്ച ഇത് ഉണ്ടാകും പിന്നെ ജോലി കിട്ടും നല്ല വിവാഹത്തിന് നല്ലൊരു ഇപ്പം പെണ്ണാണെങ്കിലും നല്ലൊരു പുരുഷനെ കിട്ടും നല്ലൊരു സ്ത്രീയെ കിട്ടും അങ്ങനെ ഒക്കെ പറഞ്ഞു കൊടുക്കും നമ്മൾ ഇതിലെ പാരമ്പര്യമായി നമ്മളിതിൽ വിശ്വസിച്ച് വരുന്നതൊക്കെ ഇപ്പോൾ ഐതിഹ്യങ്ങൾ പലതും ഉണ്ടല്ലോ അപ്പോൾ പാരമ്പര്യമായി നക്ഷത്രത്തിൽ ഓരോരുത്തരും വിശ്വ എന്നാൽ ചിലർക്ക് വിശ്വാസം പോകുന്നില്ല എന്നാൽ ഇത് ഹിന്ദു മതപരമായിട്ട് നിലനിൽക്കുന്ന ഒന്നാണ് എങ്കിൽ പോലും അത് ക്രിസ്ത്യൻസാണെങ്കിലും ഇസ്ലാമിൽ പെട്ട ആൾക്കാരാണെങ്കിലും ചിലരൊക്കെ നക്ഷത്രത്തിൽ ഇന്നും വിശ്വസിക്കുന്ന ആൾക്കാരുണ്ട്